ആദ്യമായ് പാടാനെനിക്ക് താല്പര്യം തോന്നിയത് എൻ്റെ രണ്ടര വയസ്സിൽ അംഗനവാടി ജീവിതത്തിലാണ് അംഗനവാടി വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് എന്നാണ് എന്റെയമ്മ പറഞ്ഞിട്ടുള്ളത് എന്റെയമ്മ പറഞ്ഞ അറിവാണ് എനിക്കോർമ്മയില്ല അംഗനവാടി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അന്ന് ഞങ്ങളുടെ ടീച്ചറിൻ്റെ മകൻ ഇടയ്ക്ക് അവിടെ വരികയും നാടൻപാട്ട് പഠിപ്പിക്കുകയും ഡാൻസ് പഠിപ്പിക്കും നാടൻപാട്ടു പഠിപ്പിക്കും അപ്പം ചേട്ടൻ പഠിപ്പിക്കുന്ന ആ പാട്ട് കേട്ട് അതിനനുസരിച്ചിട്ട് ഞാൻ പാടാൻ തുടങ്ങി അതനുസരിച്ചിട്ട് ഡാൻസ് കളിക്കുവാൻ തുടങ്ങി എന്നാണ് എന്റെയമ്മ പറഞ്ഞ ഓർമ്മയാണ് അറിവാണെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതലുള്ളത് അന്നത്തെ ആ പാട്ട് ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ആ പാട്ട് ഞാനിടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട് ഇടയ്ക്കിടക്ക് ഞാൻ പിള്ളേരെ പാടി കേൾപ്പിക്കാറുണ്ട് ഇപ്പോൾ ഓർക്കുന്നില്ല ഞാനിത് തീരുന്നതിനു മുമ്പ് ഞാനത് പാടാൻ രണ്ട് വരി പാടാൻ ശ്രമിക്കുന്നതാണ് എനിക്കാ പാട്ട് ഇന്നും ഇഷ്ടമാണ് നമ്മുടെ യുവജനോത്സവ വേദികളൊക്കെ യുവജനോത്സവ വേദികളിൽ നാടൻ പാട്ട് പാടുന്ന ഇതിലും നാടൻ പിന്നെ ആ നാടോടി നൃത്തം കളിക്കുന്ന ആ സോങിലും ആ പാട്ടുൾപ്പെടുത്താറുണ്ട് വളരെയധികം അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് അതുകഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പിന്നീട് ഞാൻ കുറച്ചു നാൾ പിന്നെ പാടിയൊന്നും ഇല്ല ആ ഒരു ഡാൻസും ആ ഒരു പാട്ടും തന്നെ ഞാൻ പാട്ടു പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തതിട്ടുണ്ട് എന്നാണമ്മ പറയുന്നത് പിന്നെ എനിക്കോർമ്മയുള്ളത് എൻ്റെ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നമുക്ക് സംഗീതം പഠിപ്പിക്കുന്നൊരു ടീച്ചറുണ്ടായിരുന്നു സ്വരങ്ങളാണാദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് ലളിത ടീച്ചറ് വളരെയധികം സ്വരങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ആ സ്വരങ്ങളാണെനിക്കേറ്റവും കൂടുതൽ എന്നിലേക്ക് കുറെ പ്രചോദനം തന്നതെന്നെനിക്ക് തോന്നുന്നത് ആ സ്വരങ്ങളാണ് സ്വരങ്ങൾ പഠിപ്പിച്ച് സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിന്നും സംഗീതത്തിൽ സ്വരങ്ങളുള്ളതാണ് ക്ലാസ്സിക്കൽ ക്ലാസ്സിക്കൽ സോങിനോടാണ് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുള്ളത് സ രി ഗ മ പ ധ നി സ സ രി ഗ മ പ സ രി ഗ മ പ പ ധ നി സ നി പ ധ നി സ നി ഈ നിമിഷം ഞാനെൻ്റെ അഞ്ചാം ക്ലാസ് ജീവിതകാലഘട്ടത്തിലേക്ക് പോയി ഞങ്ങളുടെ ലളിത ടീച്ചറ് ഞങ്ങളെ ഇത് പഠിപ്പിക്കുന്നതും ലിം പോ തര ലത് കുത വദനാ വളരെ വളരെ മെമ്മറബൾ ആയിട്ടുള്ളൊരു വളരെ ക്ലാസ്സിക്കൽ ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത് ഞങ്ങളുടെ ടീച്ചറാണ് ക്ലാസ്സിക്കൽ നൃത്തം പഠിപ്പിച്ച സംഗീതം പഠിപ്പിച്ച ആ സംഗീതം ഞങ്ങൾ പാടാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളതിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് സ്കൂളിൽ ദേശഭക്തിഗാനം പാടുന്നതിലേക്ക് നയിക്കുകയും അങ്ങനെ ദേശഭക്തിഗാനത്തിലൊരംഗമാകാൻ സാധിക്കുകയും ചെയ്തു ആ കാലഘട്ടം അങ്ങനെ പല പല സ്റ്റേജ് പ്രാഗ്രാമുകളും ഞങ്ങളുടെ സ്കൂളുകളിൽ വരുമ്പം ഞങ്ങൾ ദേശഭക്തിഗാനം പാടാൻ പോവുകയും അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഞങ്ങൾക്ക് കഴിഞ്ഞു ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ടൂഷൻ സെൻറ്ററുകളിൽ ഞാനവിടെ പാടുന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെയും എന്നെ എൻ്റെ എൻ്റെ സൺഡേ സ്കൂള് മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന സാറു തന്നെയാണ് എൻ്റെ ടൂഷൻ സെൻറ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ടൂഷൻ സെൻറ്ററുകളിൽ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം കമ്മൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുണ്ട് ക്ലാസ് നടക്കുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ ഒന്നിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രയർ സോങ് പാടി പാടുവാനായിട്ട് എനിക്ക് എൻ്റെ മത അധ്യാപകൻ തന്നെയാണ് അവിടുത്തെ അധ്യാപകനും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പ്രഥമ അധ്യാപകനും അദ്ദേഹം തന്നെയാണ് ജോസ് സാറ് എന്നെക്കൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയർ സോങ് പാടിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാനില്ലാത്ത അവസരത്തിൽ മാത്രമാണ് പ്രയർ സോങ് പാടാനായിട്ട് വേറെ ആളെ വെച്ചിരുന്നത് ആ പ്രയർ സോങ് പാടാനായിട്ട് ഒറ്റയ്ക്ക് ഇത്രയും കുട്ടികളുടെ മുന്നിൽ പാടാൻ പോലും എനിക്ക് വളരെയധികം വിഷമമോ സങ്കടമോ ഒന്നും തോന്നിയില്ല വളരെയധികം സന്തോഷത്തോടുകൂടി അത് എൻജോയ് ചെയ്താണ് പാടാൻ സാധിച്ചിട്ടുള്ളത് കാരണം എൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് സംഗീതത്തിനോടും നൃത്തത്തിനോടുമുള്ള ഒരു ഒരു ഒരു ആവേശം എന്നൊക്കെപ്പറയാം ഒരാവേശമാണോ ഒരു ആകാംക്ഷയാണോ ഇഷ്ടം എന്നൊക്കെപ്പറയാം ആ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടുതന്നെയാണ് സംഗീതമെന്ന് കേൾക്കുമ്പോഴും ഇന്നും അറിയാതെ സ്വരങ്ങളും സംഗീതത്തിൻ്റെ ആ ഒരു രുചികളും അതിനൊത്ത് നൃത്തം ചുവടുകൾ കാൽച്ചുവടുകൾ വെയ്ക്കുവാനും വളരെയധികം സാധിക്കാറുണ്ട് ഇന്നും ഒരു ആ ഒരിഷ്ടം ആ ഒരു ചെറുപ്പകാലത്തിലെന്നെക്കൊണ്ടുപോയ ആ ഒരു ഇഷ്ടമായിരിക്കാം ഇന്നും എനിക്ക് തുടർന്നുകൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇന്നും എന്നെകൊണ്ടാവുന്ന വിധത്തിലെല്ലാം പറ്റുന്ന പാട്ടുകളെല്ലാം പാടുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതാസ്വദിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞ് കൊടുത്ത് പറ്റുന്ന രീതിയിൽ എൻ്റെ രണ്ട് മക്കളേയും ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് അവർക്കും വളരെയധികം ഇഷ്ടമാണ് സംഗീതം അവരും സംഗീതത്തിന് സംഗീത മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാരി കൂട്ടുകയുമൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കും വളരെയധികം സംഗീതത്തോട് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള നാല് പേർക്കും ഒരപ്പനാണെങ്കിലും രണ്ട് മക്കൾക്കാണെങ്കിലും അമ്മക്കാണെങ്കിലും വളരെയധികം സംഗീതമെന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാ തരത്തിലും എൻ്റെ ആ ഒരു ചെറുപ്പകാലത്തിൽ കൊള്ളുന്ന സംഗീതത്തിനോടുള്ള പാഷൻ തന്നെയാണ് എൻ്റെ മക്കളിലേക്കും എനിക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചത് എൻ്റെ അമ്മ പറഞ്ഞതാണ് ഓർമ്മയാണ് ആ ഒരു ഓർമ്മയിലൂടെ ആ ഒരു പാട്ട് കേട്ട് ആ ഇന്നത്തെ എൻ്റെ അംഗനവാടി അധ്യാപികയുടെ മകനായ രതീഷ് ചേട്ടൻ്റെ രതീഷ് ചേട്ടൻ്റെ ആ ഒരു സംഗീതം കേട്ട് ആ ഒരു നാടോടി നൃത്ത അധ്യാപകനായിരുന്നു പുള്ളിക്കാരൻ ആ ഒരു ഇത് കേട്ടിട്ടാണ് ഞാനതിലേക്ക് പോയത് കുറവനും കുറുവത്തിയും അതാണ് ആ സോങ് കുറവനും കുറത്തിയുമാണ് സോങ് വളരെയധികം ഇഷ്ടമായിരുന്നു ആ ഒരു സോങ്ങിൽ തന്നെ ഞാൻ ആ അംഗനവാടി കാലഘട്ടത്തിൽ തണ്ണീർമുക്കം പഞ്ചായത്തിൽ ആ പാട്ടുതന്നെ സാറ് പാടിക്കൊണ്ട് ഞാൻ പാട്ട് ഡാൻസ് കളിക്കുകയും അതിനൊന്നാം സ്ഥാനം ഒന്നാം സമ്മാനം എനിക്ക് അംഗനവാടി തലത്തിൽ മേടിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നുമതോർക്കുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് എൻ്റെ ആ ചെറുപ്പജീവിത കാലഘട്ടത്തിലാണ് സംഗീതത്തിനോടുള്ള പാഷൻ വന്നത് ആ ഒരു പാഷനാണ് ഇന്നും ഞാൻ തുടർന്നുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിന് സന്തോഷവും മനസ്സിന് കുളിർമയും ഒരു പ്രത്യേക എനർജി തന്നെ തരുന്നതാണ് സംഗീതമെന്ന് പറയുന്നത്